നമുക്ക് തൊണ്ടയടപ്പും തൊണ്ടയടപ്പ് വരുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കും അത് തുളസി ഇല ചുവന്നുള്ളി പിന്നെ കരിപ്പട്ടി കുരുമുളക് ഇതെല്ലാം കൂടി വെന്തുപയോഗിച്ചതിൻ്റെ എൻ്റെ കുഞ്ഞിലേ എനിക്ക് പനിയൊക്കെ വന്നപ്പം എൻ്റെ അമ്മച്ചി എനിക്കിതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോളത് ഞാൻ എൻ്റെ എൻ്റെ ഭ കുടുംബത്തിന് എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനോക്കെ ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ചൂടാക്കും ഉപ്പിട്ട് വെള്ളം ചൂടാക്കി അത് വായി പിടിക്കും അതും നമുക്കൊരു ആശ്വാസമാണ് നമ്മൾ ഞാൻ കൂടുതലും മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ഇത് വച്ചും നമ്മൾ ചെയ്യാറുണ്ട് അതാണ് നമുക്കേറ്റവും പിന്നെ കൂടുതലായിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലി പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കണം പിന്നെ അവർ ആവി പിടിക്കുന്ന മരുന്നും ഒക്കെ വെക്കും അതിൽ ഭേദം നമ്മൾ വീട്ടിൽ ആവി പിടിക്കും തൊണ്ട തൊണ്ടക്ക് വേണ്ടീട്ട് നമ്മൾ ച്ചി ഇഞ്ചി ചൂടാക്കി അത് ചവച്ച് അത് ച അങ്ങനെ ചെയ്യും പിന്നെ ഗ്രാമ്പു ചൂടാക്കി അത് വായിലിട്ട് ചവക്കും ഇങ്ങനക്കെ പല പ്രകൃതിയുമായിട്ട് നമ്മള് കൂടുതൽ അടുത്ത് അങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മളുപയോഗിക്കാൻ നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ തുളസി ഇല ഞവര ഇല തിരുമി അത് ഉച്ചീൽ നെറ്റീലൊക്കെ തൂക്കും അങ്ങനേം ചില ആശ്വാസങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മൾ കൂടുതലും അങ്ങനെയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ കുട്ടികൾക്കൊക്കെ വരുമ്പോൾ അവരെ ചുമയൊക്കെ വരുമ്പോഴ്ത്തേനും നമ്മൾ കുരുമുളകും ഉപ്പും എല്ലാ കുരുമുളകും ഇതും ചുക്കും ഇതെല്ലാം കൂടെ ഇട്ട് വെന്ത് പിള്ളേർക്ക് കൊടുക്കും അവർക്ക് പനി വരുമ്പോഴായാലും ഒക്കെ നമ്മൾ നമ്മുടെ പ്രകൃതിയുമായിട്ട് കൂടുതലും ഇഴകി ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നതാണ് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോടാണ് താല്പര്യം തുളസി വല്ല ചും പിന്നെ ആവി പിടിക്കും തുളസി ഇല ഇട്ട് ആവി പിടിക്കും അതും അത് തൊണ്ടക്ക് ആശ്വാസമാണ് പിന്നെ വിയർപ്പ് കൂടുതൽ വിയർക്കാതെ അതിന് വേണ്ടീട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും പിന്നെ പച്ചമരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ചുമക്ക് പാ ചെറു ചൂട് പാല് തിളപ്പിച്ച് അതിനകത്ത് മഞ്ഞൾ പൊടി ഇട്ട് കിടക്കാൻ നേരത്ത് കൊടുക്കും കുടിക്കുന്നതും ചുമക്ക് ഒരാശ്വാസമാണ് അങ്ങനെ കൃത്രിമമായിട്ടുള്ള മരുന്നുകളില്ലാതെ നമ്മുടെ പ്രകൃതിയുമായിട്ട് സം പ്രകൃതിയുമായിട്ട് ഇണകി ഇഴകി ചേർന്ന് അതുമായിട്ട് ജീവിക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം തുളസി ഇല ചുക്ക് കുരുമുളക് ഇതെല്ലാം തൊണ്ടയടപ്പിന് നല്ല മരുന്നാണ് ഞാനും ഇപ്പം അത് എൻ്റെ കുടുംബത്തിന് ചെയ്യുന്നുണ്ട് അതിനെ പറ്റി നമുക്ക് നല്ല അഭിപ്രായമാണ് നമ്മള് മറ്റുള്ളവർക്കത് പറഞ്ഞ് കൊടുക്കേം ഇന്ന രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ തൊണ്ടക്ക് ആശ്വാസം വരും പനി കഫക്കെട്ട് ഇതിനൊക്കെ ഒരു നല്ല മരുന്നാണ് അതുപോലെ ചുമ വന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടീട്ട് നമ്മൾ തുളസി ഇല ഒക്കെ ആവി പിടിച്ചെടുക്കുന്നതും നല്ലതാണ്